നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നാനാജാതി മതസ്ഥരായ ആളുകൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരിടമാണ് അവിടെ അന്ധവിശ്വാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് കാരണം മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാ ജാതിമതത്തിലും ഉണ്ട് ക്രിസ്ത്യൻസിലായാലും മുസ്ലിംസിലായാലും അത് ഹിന്ദുക്കളിൽ ആയാലും ഒക്കെ ഈ മതപരമായ അന്ധവിശ്വാസങ്ങൾ പിൻതുടർന്നുകൊണ്ട് പോകുന്നുണ്ട് അതു തീർച്ചയായിട്ടും അത് അത്രനല്ല കാര്യങ്ങൾ അല്ല അതു പോലെ തന്നെ ക്രിസ്ത്യൻസിൽ തന്നെ പല കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട് പല ധ്യാനകേന്ദ്രങ്ങളും ധ്യാനകേന്ദ്രങ്ങളെയും അതുപോലെ ചില ആരാധനാലയങ്ങളെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇടവകയിൽ പോലും വരാത്ത ആളുകളെ സ്വന്തം വീടിനടുത്തുള്ള ആരാധനാലയങ്ങളിൽ വരാതെ മറ്റുള്ള എന്നാ ധ്യാന കേന്ദ്രങ്ങളിൽ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിലൊക്കെ ആയാലും പോകുന്ന പല ആൾക്കാരുണ്ട് അതൊക്കെ ഒരു നല്ല ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നില്ല അതുപോലെതന്നെ ഹിന്ദുക്കളിലായാലും ഒക്കെ ഇത്തിരീ അന്ധവിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഹിന്ദുക്കൾ തന്നെ ഒരുപാട് പല പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് പല ജാതിയിൽപ്പെട്ട ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ തീർച്ചയായിട്ടും കൂടോത്രവും കൺകെട്ടും എന്നാൽ അന്ധമായിട്ട് ഇത് കാര്യങ്ങൾ എന്നാൽ നൂല് കെട്ടും ചരട് കെട്ടും അതുപോലെ പറയാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഇതിപ്പം പെട്ടെന്ന് എടുത്തു പറയാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അന്ധ അന്ധമായിട്ട് ഈ പുതിയൊരു ജനറേഷൻ അങ്ങനെ ഒരു കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് തോന്നിയിരിക്കുന്നത് കൂടുതലും പഴയ ആൾക്കാരാണ് എന്നാൽ ഇതിൽ അന്ധവിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്നതും ഈ പുതിയ ജനറേഷനിൽ വരുന്നവർക്കൊക്കെ കുറച്ചൊക്കെ മാറ്റം ഉണ്ട് എന്തിരുന്നാലും കുറേയൊക്കെ ജനങ്ങൾ അതിനകത്തും ഇതു ചെയ്യുന്നുണ്ട് മുസ്ലിംസിൽ ആയാലും ശരിക്കും ഒരുപാട് അന്ധവിശ്വാസവും എന്നാൽ ഓതലും ഇതൊക്കെയുള്ളത് പരിപാടികളൊക്കെ അതിലും ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളിലും എല്ലാ മതത്തിലും ഉണ്ട് ഇന്ന ഒരു മതം എന്നോ അന്ധവിശ്വാസത്തെക്കുറിച്ച് പറയാണെങ്കിൽ ഇന്നയൊരു മതം എന്നോ അല്ലേൽ ഇന്ന ഇടയിലുള്ള ആൾക്കാരെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേതോ അല്ല പ്രദേശം അങ്ങനെയുള്ളൊരു ഇതൊന്നും അല്ല എല്ലാ വിഭാഗം ആൾക്കാരിലും എല്ലാ ഏരിയയിലുള്ള ആൾക്കാരും ഇങ്ങനെ ഒരു അന്ധമായ വിശ്വാസം പിന്തുടരുന്ന ആളുകൾ ഉണ്ട് എല്ലാറ്റിലും ചില ഇടങ്ങളിലൊക്കെ അതൊക്കെ പ്രശ്നം ആകാറുണ്ട് ഈ കുഞ്ഞുങ്ങളെ കുരുതി കൊടുക്കുകയും അതുപോലെ അന്ധമായി വിശ്വസിച്ചാലുമുണ്ടല്ലോ എന്നാ ഭാര്യമാരെ അല്ലെങ്കിൽ അങ്ങനെ വികലമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുകയും എന്നാ അതൊക്കെ ഒരു വീട്ടിലത്തെ വീടുകളിൽ തന്നെ പലകാര്യങ്ങളും നമുക്ക് ഒരു മതത്തിൻ്റെ കീഴിൽ അന്ധമായിട്ട് ഇന്ന മരം വെക്കാൻ പാടില്ല ഇന്ന ദിശയിൽ തിരിയാൻ പാടില്ല അങ്ങനെ ഉള്ളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ കൂടുതലാണെന്നു തോന്നുന്നു കാരണം പല ജാതി മത വ്യവസ്ഥകളിൽ നിലനിൽക്കുന്നതു കൊണ്ട് പലരിലും അയൽവക്കത്ത് പോലും പല പല ആളുകളായിരിക്കും താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ പോലും പല രീതിയിലായിരിക്കും അവർ മതപരമായ ചടങ്ങുകൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിന്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരാനുള്ള സാദ്ധ്യതകൾ എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും ഒരു നമ്മൾ തുടർന്നു പോകുക എന്നു പറയുന്നത് ഒരു നല്ല ഒരു കാര്യമല്ല അതിനെയൊക്കെ നമ്മൾ വേർതിരിച്ചു കാണാൻ നേടണം അതിനെ നമ്മൾ നമ്മൾ നമ്മുടെ ഈ ഏരിയയിൽ അങ്ങനെ അന്ധമായ മതപരമായതിൽ അന്ധമായിട്ടു വിശ്വസിക്കുന്നവർ കുറവാണ് കാരണം പ്രത്യേകിച്ച് ഈ പുറത്ത് ജനങ്ങളുണ്ട് ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ അതിന് തുനിയുന്നില്ല അതിനകത്തോട്ടു അങ്ങനെ കൂടുതൽ ഇതാകുന്നില്ല എങ്കിലും ഇല്ലായ്കയെന്നു പറയാൻ പറ്റില്ല അങ്ങനെ ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും എന്നാൽ അതൊരു നല്ല കാര്യങ്ങൾ അല്ല അത് ജനങ്ങൾ അത് പഠിപ്പും വിവരവും വരുന്നത് അനുസരിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഒരു നല്ലയൊരു ഗുണമായിട്ടാണ് ഞാനത് കാണുന്നത് കാരണം വിദ്യാഭ്യാസം നല്ല ഉള്ള ആൾക്കാരിൽ അങ്ങനെ ഒരു അന്ധമായുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു വരുന്നുണ്ട് പൂർവ്വികരിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അന്ധമായിട്ട് മതത്തെ ഇതുകൊണ്ട് ആളുകൾ പിൻതുടർന്നൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ വെച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്